നമ്മുടെ സമൂഹത്തിൽ ബോധവൽകരണ പരിപാടികളൊക്കെ ഒരുപാട് നടത്താറുണ്ട് എല്ലാ ജനപ്രതിനിധികളും മറ്റുള്ള

എല്ലാവരും ചേർന്ന് ബോധവൽകരണ പരിപാടികളൊക്കെ നടത്താറുണ്ട് ഏത് അസുഖമായാലും അവരെ നല്ല രീതിയില് സംരക്ഷിക്കാറുണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട് അവരെ അവരെ ആ രോഗത്തെ കുറിച്ച് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും അവർക്ക് അതിന് വേണ്ട ധൈര്യം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മള് നമ്മുടെ മനസ്സിനെ രോഗിയായൊരാൾ മനസ്സിനെ എത്ര മാത്രം അവര് ബലപ്പെടുത്തി നിർത്താന് പറ്റും ആ രീതിയിലൊക്കെ എന്ത് വന്നാലും നമ്മൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകണം എന്നൊക്കെ ഉള്ള ബോധവൽക്കരണമൊക്കെ എല്ലാം രോഗ രോഗങ്ങള് രോഗിയായിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് അവർക്കൊക്കെ നല്ല രീതിയില് ബോധവൽക്കരണം കൊടുക്കാറുണ്ട് സമൂഹത്തിന് മുന്നിലവർ തളർന്നു പോകാതെ അവരെ കൈപിടിച്ചുയർത്താ വേണ്ടി അവർക്കൊരു കുഴപ്പവുമില്ല അവർ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അസുഖത്തെയും മറികടന്ന് നിങ്ങള് മുന്നോട്ടു വരും എന്നൊക്കെ ഉള്ള രീതിയിലവരെ നല്ല രീതിയില് അവർക്കുള്ള മനസ്സിനെ പറഞ്ഞ് ബലപ്പെടുത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുമൊക്കെ ഉണ്ട് സമൂഹത്തില് രോഗങ്ങൾ എല്ലാവർക്കും രോഗങ്ങളൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ അപ്പോള് എല്ലാവരും അതനുസരിച്ച് സഹ അവർക്കുള്ള മനസാന്നിധ്യം കൈവിടാതെ അവർക്ക് അവര് നല്ല രീതിയില് മുന്നോട്ട് വരാന് വേണ്ടി അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കാറുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരുപാട് ആൾക്കാരും അസുഖം വന്ന് കഴിയുമ്പോള് അവര് തളർന്നു പോകും ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കില് ഞാന് ഇനി എനിക്ക് പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് അവര് സംസാരിക്കുമ്പോള് അവർക്ക് അങ്ങനല്ല നിങ്ങള് നിങ്ങള്ക്കൊരു കുഴപ്പവുമില്ല നല്ല രീതിയില് നിങ്ങള് മുന്നോട്ട് വരും നിങ്ങൾക്ക് അങ്ങനൊരു രോഖമൊന്നുമില്ല എന്നും അതങ്ങ് നിങ്ങള് നല്ല രീതിയില് ഒരു കുഴപ്പവുമില്ലാന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ അവർക്ക് നല്ല രീതിയില് ബോധവൽക്കരണം നടത്താറുണ്ട് ബോധവൽക്കരണ പരിപാടികളൊക്കെ എല്ലാ എല്ലാ പഞ്ചായത്തിലും ഓരോ പഞ്ചായത്തിലും നടത്തി അവരെ ബോധവൽക്കരിക്കാറുണ്ട് കൂടുതൽ ആൾക്കാരും രോഗങ്ങൾ വരുമ്പോൾ തളർന്ന് പോകും അതുകൊണ്ട് അവരെ നിങ്ങൾ തളരരുത് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ് അവരെ നല്ല രീതിയില് കൈപിടിച്ച് ഉയർത്തി അവരെ മനസ്സിന് ബലം കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയില് ബോധവൽക്കരിക്കാറുണ്ട്